അപ്പം ഇതിൽ പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മത്സ്യബന്ധനം നമ്മൾ എല്ലാവർക്കും ആവശ്യമുള്ള ഒരു സാധനമാണ് മത്സ്യം മത്സ്യം നമ്മൾ എല്ലാവരും യൂസ് ചെയ്യുന്നതാണ് ഫുഡ് കഴിക്കുന്നതാണ് എല്ലാമാണ് അതുപോലെത്തന്നെ ഈ എൻ്റർടൈൻമെൻറിങ്ങ്ന് വേണ്ടിയും പെറ്റായിട്ടും ഒക്കെ വളർത്തുന്നവരുണ്ട് അപ്പം അതിന് നമുക്ക് മത്സ്യം അത്യാവശ്യമാണ് മത്സ്യബന്ധനം തടഞ്ഞ് കഴിഞ്ഞാൽ അതേപോലെത്തന്നെ അവർക്ക് ആ തൊഴിലിൽ ജീവിക്കുന്നവർക്ക് ഒരു ഒരു ഇതാവും അവർക്ക് അവരുടെ ഒരു ജീവിത മാർഗ്ഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മത്സ്യബന്ധനമാണ് അപ്പം അതിന് പരമാവധി സർക്കാർ പിന്തുണ നൽകുക അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മത്സ്യബന്ധനം ചെയ്തില്ലെങ്കിൽ അവർക്ക് ആ ജോബ് ചെയ്യുന്നവർക്ക് അതിൻ്റെ അവരുടെ കുടുംബത്തെയും അത് ബാധിക്കും കാരണം അവർ അവരുടെ വീട് കുടുംബം നോക്കാൻ വേണ്ടിയിട്ടാണ് അവർ ആ ജോബിന് പോവുന്നത് അപ്പം അതെല്ലാവരും ഒന്നും നോക്കുക പിന്നെ ഈ അലങ്കാര മത്സ്യമായിട്ടും അതേപോലെത്തന്നെ ഈ പെറ്റായിട്ട് വളർത്തുന്നവരൊക്കെ മത്സ്യം ഭയങ്കര എൻ്റർടൈൻമെൻറിങ്ങായിട്ട് കൊണ്ട് നടക്കുന്നവരും ഉണ്ട് ഇതിനൊക്കെ പോരാത്തതിന് ഫുഡ് അത്യാവശ്യമാണ് മത്സ്യത്തെ നമ്മൾ ഫുഡാക്കുന്നുണ്ട് അപ്പം ഇതെല്ലാം നിങ്ങളൊന്ന് ആവശ്യമുള്ളതാണ് അതുകൊണ്ട് മത്സ്യബന്ധനത്തിന് സർക്കാർ പിന്തുണ ആവശ്യമുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ